എങ്ങനെയാണ് കഥാപാത്രങ്ങൾക്ക് രൂപം നൽകുന്നത് എന്നു ചോദിച്ചാൽ അനുദിനം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും സമൂഹത്തിൽ നടക്കുന്ന ഓരോ മാറ്റങ്ങളും അതുപോലുണ്ടാകുന്ന ഓരോ സംഭവങ്ങളെയൊക്കെ ബേസ് ചെയ്ത് ഇങ്ങനെ കഥകളെ രൂപപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് ഞാൻ കൂടുതലും ബേസ് ചെയ്യുന്നത് ബൈബിളിനെയാണ് ബൈബിൾ ബേസ് ചെയ്താണ് കൂടുതലും ഇതുപോലെയുള്ള കഥകൾ മെനയുന്നതും അതുപോലെ മൂല്യം നൽകുന്ന മൂല്യ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന തരത്തിലുള്ള കഥകളാണ് ഞാൻ കൂടുതലും രചിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് എസ്തറിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ളതും അതുപോലെ യോനായുടെ ജീവിതത്തെയൊക്കെ ആസ്പദമാക്കിയൊക്കെ ഞാനിങ്ങനെ ഓരോരോ കഥകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് അത് ഒത്തിരി വലുതെന്നു പറയാൻ പറ്റത്തില്ല ഞങ്ങളുടേതായിരിക്കുന്ന സമൂഹത്തിൽ ചെറിയ ചെറിയ രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ചിലപ്പോൾ കഥകൾ നാടകപരമായിട്ടോ കഥാപ്രസംഗ രൂപേണയോ ഒക്കെയാണ് ഞാനത് കൂടുതലും പ്രവർത്തിച്ചിട്ടുള്ളത് ഇങ്ങനെയൊക്കെ കഥകൾ രൂപപ്പെടുത്തിയിട്ടുള്ളത് ഇതെനിക്ക് ഒത്തിരിയേറെ മികവുണ്ടെന്നോ കാര്യപ്രാപ്തി ഉണ്ടെന്നോ എനിക്ക് പറയാൻ പറ്റത്തില്ല എങ്കിലും ഞാൻ എൻ്റേതായ രീതിയിൽ ഞാനിത് പരിശ്രമിക്കാറുണ്ട് വിശ്വസനീയം രസകരമോ രസാ രസകരവുമായ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കാറുണ്ടോ എന്നു ചോദിച്ചാൽ ഞാനിതിനെ ബേസ് ചെയ്തായതുകൊണ്ട് എനിക്കതിൽ വിശ്വാസമുണ്ട് ബൈബിളിനെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് ബൈബിളിന് എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഘടകമായിട്ട് നിലകൊള്ളുന്ന ഒരു വചന ഗ്രന്ഥിയാണെൻ്റെ ബൈബിൾ അപ്പം അത് അതിനോട് ബേസ് ചെയ്ത് ആകുമ്പം അതിൽ മായമില്ലെന്നു ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് എനിക്കതിനോട് റിലേറ്റടായിട്ട് എന്തെങ്കിലും എഴുതുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിൽ എനിക്കിഷ്ടമാണ് അതുപോലെതന്നെ ഞാൻ ഇപ്പോൾ ഒരു കഥാപാത്രം തിരഞ്ഞെടുക്കുമ്പം പല പുസ്തകങ്ങളും അത് ഇതിനോട് റിലേറ്റഡായിട്ടുള്ള പല പുസ്തകങ്ങൾ മറ്റുള്ളവർ എഴുതിയത് വായിക്കുകയും അതിൻ്റെയൊക്കെ ബേസിലാണ് ഞാനെൻ്റേതായ രീതിയിൽ ഞാനൊന്നു രൂപപ്പെടുത്തുന്ന അല്ലാതെ ഞാൻ സ്വന്തമായിട്ടും എനിക്ക് പറയാൻ എനിക്ക് പറ്റുമോയെന്ന് എനിക്കറിഞ്ഞു കൂട എങ്കിലും ഞാൻ പരിശ്രമിക്കുന്നത് മുഴുവനും ഇതിന് എൻ്റെതായൊരു തനിമ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിന് റെഫറായിട്ട് ഞാൻ പലത് ഉൾക്കൊള്ളിക്കാറുണ്ട് ഇപ്പം മറ്റുള്ളവരുടെ പുസ്തകങ്ങൾ വായിച്ച് അതിനകത്തു നിന്നും നല്ല നല്ല കാര്യങ്ങൾ ഏറ്റെടുത്തു ഒക്കെയാണ് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു സൃഷ്ടി നടത്തുമ്പോൾ സൃഷ്ടി ഉണ്ടാക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ഞാൻ പല കാര്യങ്ങൾ സർച്ച് ചെയ്യും ഒരു ബൈബിൾ തന്നെയായിരിക്കണമെന്നില്ല ആ പുസ്തകത്തോട് റിലേറ്റഡായിട്ടുള്ള ആരൊക്കെ എഴുതിട്ടുണ്ട് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് അതിനോട് ബേസ് ചെയ്ത് എന്തൊക്കെ വരാം എങ്ങനെയൊക്കെ ആയാലാണ് കൂടുതൽ ഇൻട്രെസ്റ്റിങ്ങ് ആകുക മറ്റുള്ളവരെ കൂടുതൽ പ്രചോദിപ്പിക്കുകയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുവാനും ഈ ഒരു കഥാസൃഷ്ടിക്ക് പറ്റുമോ എന്നൊക്കെ ഞാൻ ചിന്തിക്കുകയും അതിനനുസരിച്ചാണ് ഞാൻ ഓരോന്നും പ്രവർത്തിക്കുകയും അതുപോലെ ഈ കഥകൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നത് അല്ലാതെയെനിക്ക് ഒത്തിരിയേറെ വലിയ വലിയ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കത്തക്ക രീതിയിലുള്ള കഴിവും ക കാര്യങ്ങളോ ഒന്നും എനിക്കില്ല ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് എൻ്റെ ജീവിത സാഹചങ്ങളിൽ ഞാനിടപ്പെടുന്ന കുഞ്ഞുങ്ങളിൽ അവർക്കു പകർന്നു കൊടുക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ സംഭവങ്ങളും കാര്യങ്ങളുമൊക്കെ ഞാനിങ്ങനെ മറ്റുള്ളയിടത്തു നിന്നു നോക്കിയും വായിച്ചും ഒക്കെ ഞാനത് ചെയ്യാറുണ്ട്